ഹലോ താമശ്ശേരി വില്ലേജ് ഓഫീസിലെ ക്ലർക്ക് അല്ലേ ഞാൻ വിളിക്കുന്നത് അമീൻ ആണ് കൊടുവള്ളിയിൽ നിന്നാണ് വിളിക്കുന്നത് ഞാൻ വിളിച്ച കാര്യം എന്താണെന്ന് വച്ചാൽ എൻ്റെ കഴഞ്ഞ ദിവസം അതായത് പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച ഒരു ഉച്ചസമയത്ത് എൻ്റെ ഭാര്യ പ്രസവിച്ചിരുന്നു ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റലിൽ നിന്ന് അപ്പം അതിൻ്റെ ജനന സർഫിക്കറ്റും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട കോളിങ്ങിനാണ് ചെറിയ ഒരു മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ബന്ധപ്പെട്ട കാര്യത്തിനാണ് താങ്കളെ ഒന്ന് വിളിച്ചത് അപ്പം മിസ്റ്റേക്ക എന്താണെന്ന് വച്ചാൽ ജനിച്ചത് പതിമൂന്ന് ജനിച്ചത് പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ചയാണ് അപ്പോൾ അതിലുള്ള ഡേറ്റ് കാണിക്കുന്നത് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പം പതിനാഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഡേറ്റ് കാണിക്കുന്നത് അപ്പോൾ അതിന് ക്ലാരിഫിക്കേഷൻ പെടുത്തുന്നുണ്ട് അപ്പം അത് മാറ്റണം അല്ലെങ്കിൽ ഭാവിയിൽ അത് ഭയങ്കര പ്രശ്നമാവും ഇപ്പോൾ നിങ്ങള് വില്ലേജ് ഓഫീസിലെ ആൾക്കാർ ബന്ധപ്പെട്ടത് എങ്ങനെയാണ് മാറ്റേണ്ടത് എന്താണ് അതിൻ്റെ പ്രൊസീജിയേഴസ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരുന്നു അപ്പം അത് എങ്ങനെയാണ് ഇനി മാറ്റേണ്ടത് അതിൻ്റെ രേഖകളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതുള്ളതും അത് ഓൺലൈൻ വഴിയാണോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ വന്നു ഹാജരായിട്ട് ഡോക്ടറുടെ ക്ലാരിഫിക്കേഷന കാര്യങ്ങളൊക്കെ നല്ല കോളേജിൻ്റെ ക്ലാരിഫിക്കേഷനും പ്രസവിച്ച കോളേജിൻ്റെ ക്ലാരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഒന്ന് അറിയിക്കണം കേട്ടോ ഓക്കെ ശരി